ഇതാരാണ് ആ വീടെവിടെയാണ് മുക്കമാണല്ലേ ആ എന്തായിരുന്നു ഫോൺ വാങ്ങാൻ ആണോ മേഡം എത്രയിൻ്റെ ഫോൺ ആണ് ഉദ്ദേശിക്കുന്നത് ആണോ

ഇപ്പോൾ ഓപ്പൊ ഉണ്ട് റെഡ്മീ ഉണ്ട് സാംസങ് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ഫോണുകൾ അവൈലബിൾ ആണ് പതിനഞ്ചിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പോ ഉണ്ട് പിന്നെ റെഡ്മീ ഉണ്ട് റെഡ്മീക്കാണങ്കിൽ നല്ല ക്ലിയർ ക്യാമറ ഒക്കെയാണ് പിന്നെ ഈ എം ഐ ഉണ്ട് ഞങ്ങൾ അടവിനൊക്കെയാണ് ഫോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ അടവിന് വേണമെന്നുള്ളവർക്ക് അടവിനൊക്കെ കൊടുക്കുന്നുണ്ട് മേഡം ആ മേഡം ഇപ്പോൾ ഒരു റെഡി ക്യാഷ് തെ തരാൻ തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇ എം ഐയിലൂടെ പോകാം ഇ എം ഐ സ്നിറ്റ് കൊടുക്കുവാണെങ്കിൽ തന്നെ മേഡത്തിൻ്റെ ആധാർ നമ്പർ അക്കൗണ്ട് നമ്പർ അക്കൗണ്ടിന്റെ ബുക്കിൻ്റെയൊരു ഫോട്ടോ അതൊക്കെ വേണമായിരുന്നു അങ്ങനെ നോക്കാനാണല്ലേ ആ മേഡം ഇപ്പം ഏതാണ് ഫോൺ യൂസ് ചെയ്യുന്നത് ഐഫോൺ ആണോ അ ആ ആണോ ആ ഞങ്ങളിവിടെ ഷോപ്പ് ഇവിടെ കോഴിക്കോട് താമരശ്ശേരി ആണേ അപ്പോൾ അപ്പോൾ മേഡത്തിനങ്ങനെ ഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഈ നമ്പറിൽ കോൾ ചെയ്താലും മതി കേട്ടോ ഈ എം ഐയും കാര്യങ്ങളൊക്കെ ചെയ്തുതരും പിന്നെ ഫോൺ മേടിക്കുകയാണെങ്കിൽ പതിനഞ്ച് സെ പതിനഞ്ചിന്റെ ഫോൺ മേടിക്കുകയാണെങ്കിൽ അതിന്റെ ഓഫറും കാര്യങ്ങളും പിന്നെയതിന്റെ സമ്മാനാമൊക്കെ കൊടുക്കുന്നുണ്ട് ആ പതിനഞ്ച് രൂപ പതിനഞ്ച് റുപ്പയെൻ്റെ ഫോൺ എടുക്കുകയാണെങ്കിൽ അതിലൊന്നുകിൽ വാഷിങ് മെഷീൻ ഫോ ടി വി ഹോം തീയറ്റർ അങ്ങനെ എന്തേ സമ്മാനം കൊടുക്കുന്നുണ്ടിപ്പോൾ ഓഫർ ഉള്ള സമയമാണ്

ആ ഓക്കെ ക്ലിയർ ഒക്കെയുണ്ട് മേഡം രണ്ട് ക്യാമറ ആണുള്ളത് പിന്നെ ഉപയോഗിച്ചാൽ തന്നെ അറിയാം നല്ല സ്മൂത്തിങ് ഒക്കെയുള്ളൊരു ഫോൺ ആണ് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അഥവാ എന്തെങ്കിലും കുഴപ്പം ഉണ്ടങ്കിൽ തന്നെ ഇങ്ങോട്ട് കൊടുന്നാലും മതി ഒരു വർഷം വാറൻറ്റി ഉണ്ട് ഡിസ്പ്ലേക്കോ അങ്ങനെന്തെ കംപ്ളേയ്ന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വർഷത്തിന് മുൻപ് കൊട്ന്ന് കൊണ്ടുവന്നാലും മാറ്റി തരുകയൊക്കെ ചെയ്യും കേട്ടോ ആ മേഡത്തിന് ഫോൺ മേടിക്കാൻ താൽപര്യം ഉണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ ഓക്കെ ശരി മേഡം താങ്ക്യൂ